ഞങ്ങളുടെ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വീ എം സീനയാണ് ഇവിടെ എഴുപത്തി മൂന്നു വാര്ഡാണുള്ളത് അതില് പണ്ട്രണ്ടും വി എം സീന ഭരിക്കുന്ന പാര്ട്ടിയും ബാക്കി പതിനൊന്നും പ്രതിപക്ഷവുമാണ് വീ എം സീന ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻടായതു കൊണ്ടു തന്നെ ഞങ്ങള് എന്തു കാര്യങ്ങൾ പറഞ്ഞാല് പെട്ടെന്ന് അവർ ചെയ്യാന് തയ്യാറാകുന്നുണ്ട് അവർ അവരാല് കഴിയുന്ന പല സഹായങ്ങളും ഇപ്പോളിതാണ് കാറ്റും മഴയൊക്കെ വന്നു പല നാശനഷ്ടമുണ്ടായി അവരത് പരിശോധിക്കാന് വരികയും അവരതിനു വേണ്ട ഏര്പ്പാടുകളൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായി ചെയ്യുകയും ചെയ്തു അതുപോലെതന്നെ പല ഇലക്ട്രിക്ക് പോസ്റ്റുകളും വീണു അവരതിനുവേണ്ടി ഇലക്ട്രിക് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അതിനു വേണ്ട ഏർപ്പാടു ചെയ്തു അങ്ങനെ ഞങ്ങള്ക്ക് എന്തു പ്രയാസങ്ങളോ ദുർണ ദുരന്തങ്ങളോ ഉണ്ടായാല് അവർ ഉടനെ ഞങ്ങളുടെ സ്ഥലത്തെത്തുകയും അവരതിനു വേണ്ടി പരിഹരിക്കാന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രദേശത്തെ എം എല് ഏ ഏ പി അനില്കുമാറാണ് അദ്ദേഹം ഏതൊരു കുട്ടി വിളിച്ചാലും എന്തു കാര്യത്തിനും ഓടി വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ആളുകള് പാർട്ടിക്കാരനെന്നോ അല്ലെങ്കില് പിന്നെ ചെറുപ്പം വലുപ്പവും നോക്കാതെ തന്നെ ഏതൊരു കുട്ടിക്കും തുറന്നു പറഞ്ഞാൽ കഴിയുന്ന ധൈര്യത്തോടെ നമുക്ക് മുന്പോട്ടു പോകാനും അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പ്രശ്നങ്ങള്ക്ക് പരിഹാരം ഉടനടി അദ്ദേഹത്താല് ചെയ്യുന്ന ചെയ്യാന് കഴിയുന്ന കാര്യങ്ങള് ചെയ്തുത അല്ലെങ്കില് അദ്ദേഹം അതിനുവേണ്ട ഉദ്യോഗസ്ഥന്മാരെ നേരില് കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി അദ്ദേഹം രാത്രിയോ പകലോ എന്നു നോക്കാതെ ഓടിവരുന്ന ഒരെമ്മല്ലേ ആണ് ശ്രീ ഏ പി അനില്ക്കുമാര് എമ്മെല്ലെ അതുകൊണ്ട് അദ്ദേഹം ഞങ്ങു വാര്ഡില്ത്തന്നെ ഇനിയും ഉണ്ടാകണം എന്നാണ് ഞങ്ങളാഗ്രഹിക്കുന്നത് ഞങ്ങളുടെ എം പി എന്നു പറഞ്ഞാല് ശ്രീ മാന് രാഹുല്ഗാന്ധിയാണ് രാഹുല്ഗാന്ധി തന്നെ ഞങ്ങളുടെ മൊത്തം ഏഴു വാര് നിയോജക മണ്ഡലം പ്രതികക്കുന്ന വയനാട് എം പിയാണ് അദ്ദേഹം തന്നെ ഞങ്ങളുടെ എന്തു കാര്യത്തിനും നമ്മുടൊരു പ്രയാസമുണ്ടെങ്കില് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട് അദ്ദേഹമത് പരിഹരിക്കുവാനും തയ്യാറാണ് അങ്ങനെ ഞങ്ങക്കെല്ലാവരും എമ്മെല്ലേയും എം പി യും പ്രെസിഡൻ്റൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് തന്നെയാണ്